എവിടെ പോകാ എങ്ങോട്ടാ എന്തെങ്കിലും കഴിച്ചോ നിങ്ങൾ വരുന്നില്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ എവിടെയാണ് നിങ്ങൾ എന്താക്കുവാ എന്ത് ചെയ്യാ വരുന്നില്ലേ എന്തെങ്കിലും കഴിച്ചോ ആണോ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക പിന്നെന്താ അതൊക്കെ പിന്നെന്താ വേറെന്താ അത് കുറെ ഉപയോഗിക്കും മലയാള ഭാഷയിൽ സാധാരണ നമ്മൾ കൂടുതൽ നമുക്ക് വലിയ ആധികാരികമായിട്ടൊന്നും സംസാരിക്കണ്ടല്ലോ എവിടെ പോകാ ഇപ്പോൾ ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോണേ ആണോ അവർ അവിടെ ആണോ അവർക്ക് സുഖമാണോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സംസാരിക്കുകയുളളൂ കൂടുതൽ ഒന്നും നമ്മൾ സംസാരിക്കില്ലല്ലോ